എനിക്ക് ഹൈക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മലകൾ തന്നെയാണ് കാരണം ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത് ഒരു അങ്ങനെ മല ഉള്ള പ്രദേശമല്ല ഒരു നോർമൽ ലെവലിലുള്ള തറനിരപ്പ് ഉള്ള പ്രദേശത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് മലനിരപ്പുള്ള അല്ലെങ്കിൽ മലയുള്ള പ്രദേശങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ് ഒരു എന്താ പറയുക ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുമ്പോൾ പോലും ഒരു വൻ മല പ്രദേശങ്ങളിലേക്ക് പോവാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറ് പ്രത്യേകിച്ചും ആ പ്രഭാത സമയങ്ങളിലൊക്കെ ആ സം അതിലേക്ക് പോകുന്നതും ആ സമയത്തുള്ളൊരു ഒരു മഞ്ഞ് അവിടെനിന്ന് താഴേക്ക് ഉള്ള കാഴ്ചകൾ ഇതൊക്കെ എന്നെ വളരെയധികം അ ആകർഷിക്കാറുണ്ട് അതുപോലെതന്നെ ഈ പർവ്വത പ്രദേശങ്ങളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ സൂര്യ രശ്മികളും ഒക്കെ നമ്മളിൽ എത്തിക്കുന്ന അതായത് നമ്മൾ സാധാരണ നമ്മുടെ വീട് വീടുകളിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂര്യ ഉദയമൊ ഒരു സൂര്യ അസ്തമയമോ ഒന്നുമല്ല അതിനേക്കാളൊക്കൊരു പ്രത്യേകതയുള്ള ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യാറ് തീർച്ചയായിട്ടും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള മലകളിലേയ്ക്കും അല്ലെങ്കിൽ മലംപ്രദേശങ്ങളിലേക്കുമുള്ള സഞ്ചാരം